ഹലോ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി ബസ്സിലാണോ ഓട്ടോറിക്ഷയിലാണോ എന്നറിയില്ല അപ്പോൾ അതിന് എന്താണ് ചെയ്യുക അക്ഷയില് കൊടുക്കണോ എവിടെയെങ്കിലും കൊടുത്താൽ ശരിയാകുമോ എനിക്കാണെങ്കിൽ അടുത്ത മാസം ഗൾഫിലേക്ക് പോവേണ്ടതാണ് എന്താണ് അതിൻ്റെ ഒരു പോംവഴി എന്ന് അറിയില്ല നിങ്ങള് മറുപടി പ്രതീക്ഷിക്കുന്നു പോരെ പറഞ്ഞല്ലോ